മറ്റ് ഭാഷകളുടെ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെ സ്വാധീനം മൂലം മലയാള ഭാഷയ്ക്ക് വളരെ അധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഇത് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം വളരെ അധികം വലുതാണ് കാരണം മറ്റ് രാജ്യങ്ങൾലേക്ക് ഇന്ന് കുട്ടികൾ കൂടുതലും പഠനത്തിനായും തൊഴിൽ മേഖലകളിലേക്ക് ആയാലും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കൊണ്ടിരിക്കുക ആണ് അത്കൊണ്ട് തന്നെ അവർക്ക് മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഇംഗ്ലീഷ് ഭാഷകൾ തന്നെയാണ് ഇപ്പം ഇംഗ്ലീഷ് ഭാഷയും അത്പോലെ തന്നെ ഹിന്ദി ഹിന്ദി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലേക്ക് കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കടന്ന് വന്നോണ്ടിരിക്കുന്നത് തൊഴിൽ മേഖലയിലേക്ക് അപ്പം അവരുമായിട്ട് സംസാരിക്കുന്നതിനും അവരോട് ആശയവിനിമയം നടത്തുന്നതിനും വേണ്ടീട്ട് ഹിന്ദി കൂടുതൽ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് മലയാളികൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അത്കൊണ്ട് മലയാള ഭാഷ ഒരു വെറും അവനവൻ്റെ കുടുംബങ്ങളിലേക്കും അത്പോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇന്ന് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ അത്കൊണ്ട് തന്നെ കുട്ടികളിൽ പോലും ഇന്ന് മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലാതെ എഴുതാനോ വായിക്കാനോ എന്നും ഇന്ന് കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ സ്വാധീനം മൂലവും അത്പോലെ തന്നെ ഇംഗ്ലീഷ് എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഇന്ന് ഇംഗ്ലീഷാണ് മുഖ്യമായിട്ട് അവർ എടുത്ത് അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ട് അവർ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം അപ്പം എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചെന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലേ അല്ല മറ്റ് വിദേശ രാജ്യങ്ങൾലേക്കൊക്കെ പോകേണ്ട കുട്ടികൾ മലയാള ഭാഷ സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല അവർക്ക് സംസാരിക്കണം എങ്കിൽ അല്ലെങ്കിൽ ആ വിദേശ രാജ്യങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് ആശയ വിനിമയം നടത്തണം എങ്കിലിഗ്ലീഷ് ഭാഷ അനുവാര്യമായി തീർന്നോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ആ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ കൈ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ആശയവിനിമയം നടത്താൻ എന്നതിനെ കുറിച്ചാണ് എല്ലാവരും ഇന്നത് കൊണ്ട് തന്നെയാണ് ഐ ഇ എൽ ടി എസ് ഒ ഇ റ്റി പോലെയുള്ള എക്സാമിന്കൾക്ക് ഒരുങ്ങ് ഒരുങ്ങുന്ന കുട്ടികൾക്കും ഇത് വളരെ അധികം അത്യാവശ്യമായി വന്നോണ്ടിരിക്കുക ആണ് അത്കൊണ്ട് തന്നെ എല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള ക്ലാസ്കളറ്റൻഡ് ചെയ്തും ആ അങ്ങനെ ഇംഗ്ലീഷ് മാക്സിമം ഉപയോഗിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിച്ച് കൊണ്ടിരിക്കുന്നത്